ഹലോ ഹലോ എന്താ വേണ്ടത് ഒക്കെ നോക്കട്ടെ ഒന്ന് ലോ ബുക്കി നോക്കട്ടെ കാരണം സാധാരണ ഈ ചെമ്മീൻ ബുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കാവാറാ പതിവ് ഞാൻ നോക്കട്ടെ

ഈ ആരാച്ചാർ നോവൽ ഇവിടുണ്ട് ചെമ്മീൻ നെ ഇത് കണക്ക് ഒരു ക്ലാസിക് നോവലല്ലേ അതുകൊണ്ട് മിക്കവാറും അത് ആരെങ്കിലുവൊക്കെ വായിക്കാനായിട്ട് കൊണ്ടുപോകാറ പതിവ് നോക്കട്ടെ ഒന്ന് മിക്കപ്പോഴും ഇത്തരത്തിലുള്ള നോവൽ കൂടുതലായും എല്ലാവരും വായിക്കാറുണ്ട് അതിനാലാണ് ഈ സ്റ്റോക്ക് ഇല്ലാത്തത് ഞാൻ നോക്കട്ടെ ഇപ്പം എടുത്തോണ്ട് പോയവർക്ക് ആ ഞാൻ നോക്കട്ടെ എടുത്തോണ്ട് പോയവരോട് ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ കാരണം അവരിന്ന് കൊണ്ട് തരികയാണെങ്കിൽ നമുക്കത് തരാം മറ്റേ ചെമ്മീൻ നോവല് ആരാച്ചാർ നമുക്ക് ഇവിടുണ്ട് അത് തരാം പക്ഷേ ചെമ്മീൻ്റെ കാര്യം ഞാൻ എന്തായാലും ഇത് നോക്കട്ടെ അവർ തിരിച്ച് കൊണ്ട് തിരികെ കൊണ്ടുവരുക ആണെങ്കിൽ നമുക്ക് ഇത് അ അറിയിക്കാം കിട്ടില്ലെൽ പിന്നെ അതും അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ളവരുടെ ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബു ബുക്സ്റ്റാളിലോ അന്വേഷിച്ചു നോക്കൂ ഇത് അഥവാ കിട്ടിയില്ലെങ്കിൽ ആ ഓക്കേ ഞാൻ എന്തായാലും ഇത് നോക്കട്ടെ എന്തായാലും അറിയിച്ചിരിക്കും കാരണം ഈ എടുത്തോണ്ട് പോയവർ നമ്മളെ ബുക്കിൽ ലിസ്റ്റ് ഉണ്ട് അപ്പം അവരെ വിളിച്ച് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അപ്പം അവരെ ഇന്ന് ഇന്ന് തിരികെ കൊണ്ടുവരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ആ ആ ഇത് വിളിക്കാം വിളിച്ചു പറയാം ശരി ഓക്കേ ആ ഒക്കെ